പഴയ ഗാനങ്ങളും പുതിയ ഗാനങ്ങൾലും എനിക്ക് പഴയ ഗാനങ്ങളാണ് കുറച്ചൂടെ ഇഷ്ടം കാരണം അത് കേൾക്കുമ്പോൾ എന്തോ ഒരു നൊസ്റ്റാൾജിക്ക് ഫീലിങ്ങാണ് വരുന്നത് പുതിയ ഗാനങ്ങളുള്ള കുറച്ചൂടെ മെലോഡിയസ് ഗാനത്തേക്കാട്ടിലും കുറച്ച് കൂടെ റാപ്പും ഫാസ്റ്റ് ഐറ്റവുമാണ് കൂടുതൽ വരുന്നതാണ് എൻെറ പേഴ്സണലായിട്ട് തോന്നുന്നത് പക്ഷേ പഴയ ഗാനത്തിൽ ഫാസ്റ്റ് ഐറ്റം ഉണ്ടെങ്കിൽ പോലും എന്തോ അത് കേൾക്കുമ്പോൾ ഭയങ്കര നൊസ്റ്റാൾജിക്ക് ഫീലിങ്ങാണ് ഒരു നയൻറ്റീസ് ട്വൻറ്റി ഏർലി ട്വൻറ്റിലക്കെയുള്ള ഗാനങ്ങൾ ഒരു പ്രത്യേക ഫീലാണത് കേൾക്കുമ്പോൾ ചിലപ്പം ചെറുപ്പം കാലം തൊട്ടേ കേൾക്കുന്നുണ്ടായിരിക്കും അതേപോലെ പ്രൈവറ്റ് ബസ്സിലക്കെ പോകാൻ നേരത്താഗാനങ്ങളൊക്കിടാൻ നേരത്ത് വേറൊരു ഫീലിങ്ങാണുണ്ടാകുന്നത് അതിപ്പം പുതിയ ഗാനങ്ങൾ കേൾക്കുമ്പം നമുക്കത്രയും ഒരു നൊസ്റ്റാൾജിക്ക് ഫീലിങ്ങ് വരാറില്ലല്ലോ റീസെൻറ്റായിട്ട് കേൾക്കുന്നതല്ലേ പക്ഷേ ഇപ്പം കേൾക്കുന്ന വരികളാണെങ്കിലും പഴയ പാട്ടുകളുടെ വരികളെന്ന് പറയുന്നത് കുറച്ചൂടെന്താ കുറച്ചൂടൊരർത്ഥവത്തും കേൾക്കാൻ ഭയങ്കര രസവായിരുന്നു ഇപ്പോഴുള്ള പാട്ടുകളിൽ എനിക്ക് അങ്ങ് അങ്ങനെയൊരു അങ്ങനെയൊരു ഭംഗി ഉണ്ടെന്ന് തോന്നുന്നില്ല ഞാൻ കൂടുതലും കേൾക്കുന്നത് പഴയ ഗാനങ്ങളാണ് കാരണം എന്തോ പഴയ ഗാനത്തോടൊരു പ്രത്യേക ഇഷ്ടമാണ് വ്യത്യാസം മെയ്നായിട്ട് പറയുകയാണെങ്കിൽ അതിൽ വാക്കുകൾ പ്രയോഗിക്കുന്നതും ആ വാക്കുകൾ ആ ട്യൂണുമായിട്ട് ഇഴകിച്ചേരുന്നതൊന്നും പുതിയ ഗാനത്തിൽ കിട്ടുന്നില്ലന്നാണ് എനിക്ക് തോന്നാറ് പഴയ ഗാനത്തിലാണത് കൂടുതലും ഗാ ഇപ്പോൾ റിപ്പീറ്റായിട്ട് വരുന്ന പോലെ തോന്നാറുണ്ട് പല പുതിയ പാട്ടുകളും പക്ഷേ പഴയ പാട്ടുകളങ്ങനൊന്നുവല്ല എക്സ്ട്രീമിലി ഡിഫറൻറ്റായിരിക്കും വരുന്നോരോ പാട്ടുകളും ഒരു സിനിമെയെടുത്താൽ അതിലെല്ലാ പാട്ടുകളും പഴയ സം കാലത്താണെങ്കിൽ ഒരു സിനിമ എടുത്താലതിലെല്ലാ പാട്ടുകളും ഹിറ്റായിരിക്കും നമ്മുടെ ഫേവറേയ്റ്റായിരിക്കും പക്ഷേ പുതിയ ഇറങ്ങുന്നൊരു സിനിമേലെ പാട്ടങ്ങനെ ഒരു നമുക്കിഷ്ടപ്പെടോന്നൊന്നും കാണത്തില്ല അപ്പം കംപേർ ചെയ്യുമ്പോൾ കൂടുതൽ പഴയ പാട്ടുകളാണ് എനിക്ക് കേൾക്കാനിഷ്ടം